ഹലോ ഞാൻ ഹർഷയാണ് സംസാരിക്കുന്നത് ഇത് രാഹുലെന്ന ഡെലിവറി ചെയ്യുന്ന ആളല്ലേ ഞാൻ നിങ്ങളെ വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞത് എൻ്റെ എനിക്ക് സ്വിഗ്ഗി ആപ്പിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് നിങ്ങൾ കൃത്യം രണ്ടുമണിക്ക് എൻ്റെ അഡ്രസ്സിൽ വ വന്നിട്ട് ഭക്ഷണം തരുംന്നാണ് പക്ഷേ ഇത്രയും സമയം കഴിഞ്ഞിട്ടും നിങ്ങൾ ഇതുവരെ ഭക്ഷണം എൻ്റെ അഡ്രസ്സിൽ എത്തിച്ചിട്ടില്ല കൃത്യം രണ്ടു മണി ആകുമ്പോൾ എത്തിക്കുംന്ന് പറഞ്ഞിട്ട് ഇപ്പം സമയം രണ്ടരയായി അരമണിക്കൂർ നിങ്ങൾ വൈകി അത് എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയതെന്ന് അറിയാൻ ഞാൻ താല്പര്യപ്പെടുന്നു കാരണം നിങ്ങൾ ഇത്രേം വൈകുമെന്നുണ്ടെങ്കിൽ എന്നെ മുന്നേ തന്നെ വിളിച്ചു പറയേണ്ടതായിരുന്നു നിങ്ങളത് വൈകുംന്നുള്ളത് പക്ഷേ അതും നിങ്ങൾ പറഞ്ഞില്ല്യാ നിങ്ങൾക്കെൻ്റെ വീട്ടിലേക്ക് വരാനുള്ള വഴിയിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീട്ടിലോട്ടുള്ള ലൊക്കേഷനും കാര്യങ്ങളും എൻ്റെ അടുത്ത് ചോദിച്ചു മനസ്സിലാക്കണമായിരുന്നു ഞാനതും കൃത്യമായി തന്നെ ആപ്പിൽ വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്ട് ഇന്ന സൈഡിൽ നിന്ന് ഇന്ന് സൈഡിലോട്ടാണ് വരേണ്ടത് എന്ന് ഞാൻ കൃത്യമായി വിശദീകരിച്ച് അവിടെ പൂരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നിങ്ങൾക്കത് വായിച്ചു മനസ്സിലാക്കി അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലാന്ന് ഉണ്ടെങ്കിൽ നിങ്ങളത് ഒരു കാരണമാക്കാൻ പാടില്ലായിരുന്നു നിങ്ങളപ്പത്തന്നെ ആ വഴിയിൽ സംശയമുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചു ചോദിക്കണമായിരുന്നു ഇപ്പോൾത്തന്നെ നിങ്ങൾ അരമണിക്കൂർ വൈകി ഇനിയും നിങ്ങളെത്ര സമയം എടുക്കുംന്ന് അതും നിങ്ങളന്നെ വിളിച്ചറിയിച്ചില്ല നിങ്ങൾ നേരം വൈകുമെന്നും നിങ്ങൾ എന്നെ വിളിച്ചറിയിച്ചില്ലല്ലോ അപ്പോൾ ഇനി എത്ര സമയം എടുക്കും എന്നെന്തെങ്കിലും ഇനി എത്ര സമയം എടുക്കുംന്ന് എന്നെങ്കിലും എന്നെ പറയാ എന്നെ ഇപ്പോഴെങ്കിലും അറിയിക്കാം അറിയിക്കണമെന്ന് ഞാൻ പറയുന്നു കാരണം ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും ഭക്ഷണത്തിനുവേണ്ടി കാത്തിരിക്കയാണ് ഞങ്ങളുടെ വീട്ടിൽ ഒരു പരിപാടി നടക്കുകയായി നടക്കാൻ വേണ്ടിയിട്ട് ഇരിക്കയായിരുന്നു അപ്പോൾ ഭക്ഷണം നേരം വൈകിയ കാരണം അവർക്ക് എല്ലാവർക്കും ആകെ വയ്യാതെയായി ഷീണിതരായി അവർ അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഭക്ഷണം എത്തിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അടുത്ത തവണ ഇനിയും നിങ്ങൾ നേരം വൈകിച്ചാൽ ഞാൻ അടുത്ത തവണ എന്തായാലും അത് നിങ്ങൾക്ക് മേലെയുള്ള ആൾക്കാർക്ക്ക്കെതിരെ അത് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് ഭക്ഷണം എത്തിക്കാൻ ഞാൻ പറയുകയാണ് പറയാണ് നിങ്ങളുടെ അടുത്ത്